ഹലോ ആ പറഞ്ഞോളൂ അതെ അതെ

എത്ര കിലോ വേണം സാറേ റേറ്റ് അറുനൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ക്ലീൻ ആക്കി കൊടുക്കുമ്പോൾ റേറ്റ് കൂടും ഞണ്ടും ഉണ്ട് അത് ഇത് തന്നെയാണ് ക്ലീൻ ആക്കി കൊടുക്കുമ്പോൾ റേറ്റ് കൂടും രണ്ടിനും ആ അതെ ഇത് ഹോം ഹോം ഡെലിവറിയാണോ അതോ വന്ന് വാങ്ങുമോ ഉണ്ട് കൊണ്ട് തരാം കൊണ്ട് തരാം അത് കുഴപ്പം ഒന്നും ഇല്ല ഉണ്ട് പക്ഷേ അത് ക്ലീൻ ആക്കുമ്പോൾ പക്ഷെ പ്ലാസ്റ്റിക് കവറൊന്നും യൂസ് ചെയ്യാൻ ഒക്കത്തില്ല നമുക്കത് കൊണ്ട് തരാനുള്ള പ്ലാനിങ്ങുണ്ട് നമുക്ക് നല്ല നല്ല ഇതുണ്ട് ചെയ്യാറുണ്ട് അത് ഇല്ല അത് അറബിക്കടലിൽനിന്നാണ് വരുന്നത് ഈ പ്രാവശ്യം വന്നിട്ടില്ല അത് വേണമെങ്കിൽ നമുക്ക് വിളിച്ച് കൊണ്ടുവരാവുന്നതേയുള്ളു അതിന് റേറ്റ് ഭയങ്കര കൂടുതലാണ് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തിനടുത്ത് വരും

ഇപ്പോൾ ഉള്ളത് ഞണ്ട് ചെമ്മീൻ അയല മത്തി കക്ക നെയ്മീൻ എല്ലാം ഇരിപ്പുണ്ട് അതെ അതെ അത് ഫ്രഷ് ഫ്രഷാ കൊച്ചീന്ന് വന്നതാ ഇപ്പം ഇറങ്ങിയതേ ഉള്ളു രാവിലെ വന്നതാണ് കൊച്ചീന്ന് വന്നേയുള്ളു സാറെ അങ്ങനെയാണെങ്കി സാർ സാർ വന്ന് വന്നു നോക്കി വാങ്ങിച്ചോളൂ ഫ്രഷ് ആണ് ഞങ്ങൾ കള്ളത്തരം കാണിക്കാറില്ല ഫ്രഷ് മീനേ ഞങ്ങൾ കൊടുക്കാറുള്ളു ആ ഹാ ഹാ ഓക്കേ സാറ് വന്ന് നോക്കി വാങ്ങിച്ചാലും നല്ലതായിരിക്കും ആ നല്ല മീനെ കൊടുക്കാറുള്ളു ഫ്രഷ് മീനാണ് ഇപ്പം ഇപ്പം ഏതൊക്കെ ഞണ്ടും പിന്നെ കൊഞ്ചും എത്ര കിലോയ്ക്ക് ആയിരുന്നു

ഓ ഡെലിവറി ആണെങ്കിൽ ഹോം ഡെലിവറിയല്ലേ ഓക്കെ ക്ലീൻ ചെയ്ത് തരാം ക്ലീൻ ചെയ്ത് തരാം സെപ്പറേറ്റ് ആയിട്ട് അത് ഞങ്ങൾ ബില്ല് ഉൾപ്പെടെ അയച്ചുതരാം വീട്ടിൽ കൊണ്ടുതരാം ഉവ്വ് ഗൂഗിൾ പേ ഉണ്ട് ആ വരുന്ന ആളിന് ഗൂഗിൾ പേ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഇല്ല സാറേ കേട്ടോ അതുകൂടെ പറയാം പ്ലാസ്റ്റിക് വഴി ഞങ്ങൾ കൊടുക്കത്തില്ല ഞങ്ങൾ അല്ലാതെ ഒരുമിച്ച് പാക്ക് ചെയ്ത് സാറിന് കൊണ്ടുതരാം ഒരു കുഴപ്പവും ഇല്ല സാ ഡെലിവറി ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല സാറേ എപ്പോൾ വേണേലും വിളിക്കാം നല്ല ഫ്രഷ് മീനാണ് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്യാം ഓക്കെ ഇപ്പോൾ വേണ്ടത് നമുക്ക് ഞണ്ട് രണ്ട് കിലോ ചെമ്മീൻ രണ്ട് കിലോ അതും ക്ലീൻ ചെയ്തല്ലേ വേണ്ടത് രണ്ടും ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് ഞണ്ട് വരുന്നത് കൊല്ലത്തുനിന്ന് ആ അതെ അതെ കൊല്ലത്തുനിന്നാണ് എടുക്കുക ഫ്രഷ് മീനാണ് കിട്ടുന്നത് പിന്നുള്ളത് എടുക്കുന്നത് എറണാകുളം നമ്മുടെ എറണാകുളം പോട്ടെ ചേർത്തല ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട് ആ ആലപ്പുഴയിൽനിന്ന് ഉള്ളതുണ്ട് ആ ഓക്കെ അപ്പോൾ എത്ര ഈ രണ്ട് കിലോ മതിയോ തികയുമോ ഓക്കെ ഓക്കെ അത് എത്രയാണെന്ന് വെച്ചാൽ വിളിച്ചാൽ ഈ നമ്പർ സേവ് ആക്കി വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ ഡെലിവറി ബോയോട് ഞങ്ങൾ ഞങ്ങളുടെ കാർഡ് ഉണ്ട് അത് കൊടുത്ത് വിടാം അതിൽ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്താലും മതി ഫ്രഷേ ഇടത്തുള്ളു ഒരു ഒരു കാരണവശാലും ഞങ്ങൾ മാറ്റത്തില്ല ചതി കാണിക്കത്തില്ല നല്ല മീൻ നല്ല മീനെ കിട്ടത്തുള്ളൂ നല്ല മീനെ തന്നു വിടത്തുള്ളൂ എന്തെങ്കിലും കമ്പ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം ഞങ്ങളതിനു വേണ്ടത് ചെയ്തുകൊള്ളാം ആ ഹാ അത് ഏത് ടീം വല്ല അപ്പുറത്ത് വേറെ മീൻ കടക്കാരൻ വല്ലതും ഞങ്ങളുടെ കച്ചവടം കണ്ട് വല്ലതും കുറ്റം പറഞ്ഞതായിരിക്കും സാർ അത് നോക്കേണ്ട ഞങ്ങളുടെ മീൻ വാങ്ങിച്ചു കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം പിന്നെ വാങ്ങിച്ചാൽ മതി ഓക്കെ അപ്പം ഞണ്ട് ഒരോ കിലോ വച്ച് ഓക്കെ ബില്ല് ഉൾപ്പെടെ ഞങ്ങൾ ഗൂഗിൾ ആ രണ്ട് രണ്ട് ഓക്കെ ശരി ശരി ബില്ല് ഉൾപ്പെടെ അയച്ചിട്ടേക്കാം ഓക്കെ ശരി